വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രം സാരി അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെയുള്ളതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിനിമകളിലൊക്കെ സിനിമകൾ കാണാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അധികം അങ്ങനെ കാണാറില്ല എന്നാലും വളരെ ചുരുക്കം സിനിമകളൊക്കെ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് അതിൽ നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇപ്പോഴത്തെ പുതിയ മോഡൽ രീതിയിലുള്ള വസ്ത്രങ്ങളെ കുറിച്ചൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല പഴയ സാരി പഴയ രീതിയിലുള്ള സാരികൾ അല്ലെങ്കിൽ ഹാഫ് സാരി അല്ലെങ്കിൽ ഇപ്പം ലാച്ച അതൊക്കെ നല്ല ഒരു വസ്ത്രധാരണ രീതിയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ മോഡേൺ പെൺകുട്ടികൾ നടക്കുന്ന കൂട്ടുള്ള പുതിയ രീതിയിലുള്ള വസ്ത്രധാരണത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നും ഇല്ല ഇനി ബ്ലൗസിനാണെങ്കിലും നല്ല രീതിയിൽ ബ്ലൗസും സാരിയും ഉടുക്കുമ്പോഴത്തേക്ക് ബ്ലൗസിന് നല്ല കയ്യിറക്കം വെക്കണം എന്നുള്ളതല്ല വളരെ മാന്യമായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പോയി നിൽക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിലുള്ള രീതിയിലെ വസ്ത്രധാരണങ്ങളാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സാരിയായാലും ചുരിദാർ ഞാൻ ആണെങ്കിൽ കൂടുതലും ചുരിദാറുകളാണ് ഉപയോഗിക്കുന്ന ഒരാളാണ് ചുരിദാർ ഇടുമ്പോഴത്തേക്കും അതും അതുപോലെതന്നെ നല്ല രീതിയിൽ ഞാൻ സ്വന്തമായിട്ട് തയ്ക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട് തയ്യൽ ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്തേക്കുന്നത് നല്ല ഇറക്കമുള്ള ചുരിദാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നല്ല രീതിയിൽ സൈഡ് ഓപ്പൺ അല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള ചുരിദാർ ഇടാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലല്ല നമ്മളുടെ ശരീരം നല്ല രീതിയിൽ ഇതായിട്ട് മറയുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതിയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം മറ്റുള്ളവർ ജീൻസ് ടീഷർട് അങ്ങനെയൊക്കെ ഇടുന്നതിൽ കാണുന്നതിൽ ബുദ്ധിമുട്ട് ഒന്നുമില്ല കാരണം അത് അവരുടെ ഇഷ്ടമാണല്ലോ അങ്ങനെ എനിക്ക് എൻ്റെ താല്പര്യം എന്നു പറയുകയാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ ചുരിദാർ അല്ലെങ്കിൽ സാരി അങ്ങനെയുള്ള ഇതിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം ഞാൻ ജീൻസ് അങ്ങനെയുള്ള ഐറ്റംസൊന്നും ഉപയോഗിക്കാറും ഇല്ല പിന്നെ എല്ലാവരും നല്ല രീതിയിൽ നടക്കണമെന്നാണ് ഇപ്പോൾത്തന്നെ നമ്മൾ സിനിമകളിലൊക്കെ ശോഭന ആണെങ്കിലും മണിച്ചിത്രത്താഴിലും ഒക്കെ നല്ല സാരികളൊക്കെ ഉടുക്കുന്നതു കാണുമ്പം അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല സിനിമകളാണ് ആ സിനിമകളിലൊക്കെ ഡ്രസ്സുകൾ നല്ലതാണ് പിന്നെ ചില ചില സിനിമകളിൽ ഈ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് ഇങ്ങനെ ജീൻസും ഷർട്ടും ടിഷർട്ടും ഒക്കെ ഇടുന്നതു കാണുമ്പോൾ നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് അതിനോട് എനിക്ക് താല്പര്യമില്ല പൊതുവേ എല്ലാവർക്കും തന്നെ താൽപര്യം മോഡേൺ രീതികളെക്കാളും നല്ല പഴയ രീതിയിലുള്ള വസ്ത്രധാരണത്തിനോടാണല്ലോ താൽപര്യം പിന്നേ ലാച്ച അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടുന്നതാണെങ്കിൽ അതും നല്ലതാണ് കുഴപ്പമില്ല പാട്ടുപാവാട കുട്ടികൾക്കാണെങ്കിലും പാട്ടുപാവാടയും ബ്ലൗസ് മിഡിയും ടോപ്പ് അതൊക്കെ വളരെ നല്ല രീതിയിൽ ഫ്രോക്കൊക്കെ ആണെങ്കിലും മക്കൾക്ക് നല്ല രീതിയിൽ ഇറക്കമുള്ളത് ഫ്രോക്കൊക്കെ ഇടിയിക്കാനാണ് എനിക്ക് താല്പര്യം അവർ ആണെങ്കിലും കയ്യിറക്കം ഉള്ളതും അല്ലാതെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രെസ്സുകളൊന്നും ഇടുന്നതിന് എനിക്ക് വലിയ താല്പര്യമില്ല കൊച്ചുകുട്ടികൾ ആണെങ്കിൽപ്പോലും സ്ലീവ് സ്ലീവ്ലെസ്സ് ഇടാതെ നല്ല കയ്യിറക്കം ഉള്ളതും അല്ലെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ തയ്ച്ച അങ്ങനത്തെ ഉടുപ്പുകളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് അതൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പം വളരെ താല്പര്യം തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ഡ്രസ്സുകളോടാണ് എനിക്ക് താല്പര്യം മക്കൾക്കാണെങ്കിലും മക്കൾക്കാണെങ്കിൽ പെൺക്കുട്ടികൾക്ക് ആണെങ്കിലും ഇങ്ങനെ നല്ല ഇറക്കമുള്ളതും കെട്ടി വച്ചതുമായ ഉടുപ്പുകൾ തയ്ച്ച് ഇടീക്കുന്നത് എനിക്ക് വലിയ താല്പര്യമാണ് പിന്നെ ഞാൻ ആണെങ്കിലും കൂടുതലും ചുരിദാർ അങ്ങനെ ഉള്ളതൊക്കെ ആണെങ്കിലും അത് നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ തയ്ക്കാനും മറ്റുള്ളവർക്ക് തയ്ച്ച് കൊടുക്കാനും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ സാരി അമ്മയൊക്കെ സാരിയാണ് ഉടുക്കുന്നത് അപ്പോൾ അമ്മയുടെയൊക്കെ സാരിയൊക്കെ ആണെങ്കിലും നല്ല ഇതായിട്ട് ബ്ലൗസൊക്കെ തയ്ക്കുന്നതിലും വളരെ താല്പര്യം ഉണ്ട് അങ്ങനെ പൊതുവേ എല്ലാം നല്ല രീതിയിലുള്ള ചുരിദാർ സാരി ഫ്രോക്കുകൾ എല്ലാം നല്ല നല്ല ഇറക്കവും നല്ല ഇതുമുള്ള രീതിയിൽ മാന്യമായ രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നതിനോടാണ് എനിക്ക് വളരെ താല്പര്യം മറ്റുള്ളവരും അങ്ങനെ ഇട്ട് കാണുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ അവരോടൊക്കെ പറയാറുണ്ട് ആ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ല കളറുതന്നെയല്ല നന്നായിട്ട് തയ്ച്ചിട്ടുണ്ട് തയ്യലൊത്തു അല്ലെങ്കിൽ ഇങ്ങനെ തയ്ക്കണം നല്ലതാണ് ഇപ്പം ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ഇത് മിക്ക പെൺകുട്ടികളും ഇപ്പം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഡ്രെസ്സൊക്കെ ഇടുന്നുണ്ട് കാരണം പിന്നെ പിന്നെ സിനിമകളിൽ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉള്ളവരായിരിക്കും കൂടുതൽ സിനിമകൾ കാണുന്നവരായിരിക്കും നമ്മൾക്കതിനോട് താല്പര്യം കുറവായതുകൊണ്ടാവാം അങ്ങനെ തോന്നുന്നത് പക്ഷെ എനിക്ക് ഇഷ്ടം നല്ല രീതിയിൽ സാരി ചുരിദാർ അല്ലെങ്കിൽ ഉടുപ്പ് അല്ല എന്താണെങ്കിലും നല്ല മാന്യമായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ചേർന്ന് നിന്നാൽ ഒരു നാണക്കേടൊന്നും ഇല്ലാതെ എവിടേയും നിൽക്കാം അല്ലെങ്കിൽ ഏത് സ്ഥലത്തും നമുക്ക് ചെന്നു കയറാം ആരെയും നമുക്ക് നാണം തോന്നിക്കാത്ത രീതിയിൽ അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നിൽക്കാം തല ഉയർത്തി നിൽക്കാം എന്നുള്ള രീതിയിലുള്ള വസ്ത്രധാരണത്തോടാണ് എനിക്ക് വളരെ താല്പര്യം മറ്റുള്ളവരും അത് ഇടുന്നതിലാണ് എനിക്ക് ഇഷ്ടം